ആ പറയട്ടെ അത് ഏഴ് എത്ര പേരുണ്ടാകും ഏഴ് പേർ ഉണ്ടാകൂലെ അപ്പം നമുക്ക് ഒരു വലിയ ഒരു നമ്മളെ സെവൻ സീറ്ററ് കാറെന്നെണ് പറയുക അതാണെങ്കിൽ ചിലവ് കുറച്ച് കുറയു വണ്ടീൻ്റെ പെട്രോളും കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ഫുഡീൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടേൽ നിങ്ങൾ പറയുന്നത് നമ്മൾ സ്ഥലത്തെന്ന് ഉണ്ടായിട്ടില്ല പേയ്മെൻറ്റ് രണ്ട് ദിവസം കുറച്ച് ഇപ്പം പറയാണെങ്കിൽ പേയ്മെൻറ്റ് വണ്ടി വാടക തന്നെ ഒരു എത്ര ദിവസത്തെ ട്രിപ്പാണ് ഏഴ് ദിവസം ട്രിപ്പ് നമ്മൾ വണ്ടി വാടക തന്നൊരു പത്ത് എട്ട് ഒൻപത് വരു വലിയ കാറാണ് മയിലേജൊക്ക ഇച്ചിരി കുറവായതോണ്ട് ആ അതൊക്ക കാണിച്ച് തരാം എല്ലാം കാണിച്ച് തരാം പിന്നെ പോകുന്ന പറയാണെങ്കിൽ അത് ആ അങ്ങ് അതായത് നമ്മൾ ആ നമ്മൾ ഈ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവസാനം ആണ് നമ്മൾ പേയ്മെൻറ്റ് മേടിക്കുന്നത് ആ ഏഴ് ദിവസം നിങ്ങൾക്ക് എങ്ങോട്ടൊക്ക പോകണമോ അങ്ങോട്ടൊക്ക കൊണ്ടു പോകും എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യും നിങ്ങളെ ബില്ലങ്ങടിച്ചിട്ട് പേയ്മെൻറ്റെത്രയാച്ചാൽ തരൂ ആ കൊണ്ട് വരാം ആ ലൊക്കേഷനയച്ച് നമ്മൾ ഇപ്പോൾ ഒരു നിങ്ങൾ പറയുന്ന സമയത്ത് വണ്ടി എവിടെ എവിടെ വരണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്തും അതെയാ ആ ഉണ്ടാകുക അതെ എല്ലാ സ്ഥലത്തും കൊണ്ട് പോകാം അതിനുള്ള വേക്കൻസിപ്പം നമ്മൾ സ്ഥലത്തുണ്ട് റിസോട്ട് നമ്മൾ തന്നല്ലേ റിസോട്ടോ ലോഡ്ജോ എങ്ങനെ എങ്ങനെയാണ് വേണ്ടത് ആ റിസോട്ട് പോലെയാണെങ്കിൽ ഇച്ചിരി പേയ്മെൻറ്റ് കൂടും കേട്ടോ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ആഡഡായിട്ടുള്ള റിസോട്ടാണ് ആ അത്കൊണ്ട് അങ്ങനെ ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്ക് നിങ്ങൾ പേയ്മെൻറ്റൊക്കെ ഏകദേശം ഒരു കുറച്ച് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ഒക്കെയായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്ക് ഈ ഞാൻ നിങ്ങൾ ലൊക്കേഷനിട്ടാൽ എവിടെയാണ് വരേണ്ടത് വെച്ചാൽ വരാം ആ ഓക്കെ ഓക്കെ